ആ എന്താണ് സാറേ ആ പറഞ്ഞോ സാറേ സാറിന് എന്നോട് ചോദിക്കാൻ എളുപ്പം ആണ് സാർ പ സാറിന് എന്നോട് കാര്യങ്ങൾ ചോദിക്കാൻ എളുപ്പം ആണ് സാറേ എനിക്കിങ്ങനെ പറയാൻ അവകാശം ഇല്ല എങ്കിലും ഞാൻ പറയുവാണ് ആ നമുക്ക് സാർ തന്ന സ്റ്റാഫുകളിൾ പതിനഞ്ച് പേരുണ്ട് നമ്മളെ ഈ സൈറ്റിൽ ഏ അതിൽ രണ്ട് മൂന്ന് പേർ ഒപ്പിടാൻ വേണ്ടി കാണും എന്നിട്ട് ടീ കൊടുക്കാൻ സമയം കുടിക്കാൻ സമയം ആവുമ്പോഴത്തേക്കും അവർ ഇവിടുന്ന് എസ്കേപ്പ് ആവുവാണ് സാറേ എന്നിട്ട് വൈകുന്നേരം അതേ സമയം സാലറിക്ക് ഒരു അര മണിക്കൂർ മുമ്പ് അവർ ഇങ്ങോട്ട് കയറി വരുകയാണ് അപ്പോൾ ഞാൻ കരുതിയത് എവിടെയാണ് പോവുന്നത് എന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പതിനഞ്ച് പേരുടെ കാര്യങ്ങളും ഈ പത്ത് പേർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻറേതായ പെൻഡിങ്ങ് വർക്ക് വരും പതിനഞ്ച് പേർ നിന്നിരുന്നെങ്കിൾ സാർ പറഞ്ഞ അതേ സമയത്ത് ഞങ്ങൾക്ക് പണി തീർക്കാൻ പറ്റുമായിരുന്നു ഇവർ എവിടെയാണ് പോവുന്നത് എനിക്ക് അറിയില്ല നമ എനിക്ക് അറിയില്ലല്ലോ സാറേ ഞാൻ വിചാരിച്ചത് എവിടെ എങ്കിലും സൈറ്റിൽ നിങ്ങൾ മാറ്റി വിടുന്നതായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതിയത് അപ്പോൾ ഇന്നാണ് എനിക്ക് ഈ ഒരു സംഭവം മനസ്സിലായത് ഇവർ വരുന്നില്ല ഇങ്ങനെ മുങ്ങി നടക്കുവാണെന്നുള്ള കാര്യം അപ്പോൾ സാർ അവരോട് ചോദിച്ചാൽ മതിയായിരുന്നു അപ്പം നമുക്ക് ഇത് അറിയുന്നില്ലല്ലോ സാറേ ഇവർ മാ മാറ്റി വിടുന്നതാണോ അതോ ഇവർ ഇവിടുന്ന് മുങ്ങുന്നതാണോ നമ്മൽ വിചാരിക്കും സാറിനോട് പറഞ്ഞിട്ടാണ് പോവുന്നത് നമ്മൾ ഇതിനൊക്കെ നമുക്ക് ജോലിക്ക് വരുന്ന സാറേ ഞങ്ങൾ ജോലി ചെയ്യുന്നു ഞങ്ങൾ പാവങ്ങൾ അങ്ങോട്ട് പോവുവാണ് ഞങ്ങൾക്ക് അറിയില്ല സാറേ ഇതിൻ്റെ എന്താണ് ബുദ്ധിമുട്ടുകൾ കുറച്ചുണ്ട് സാറേ എന്തെന്നൊക്കെ വെച്ചാൽ കഴിഞ്ഞ ആഴ്ച തന്നെ സിമൻറ് തീർന്ന് പോയി അത് ഹാഫ് ഡേ വർക്ക് നിർത്തി വെച്ചു പിന്നെ രണ്ട് ദിവസം മുമ്പ് കല്ല് തീർന്ന് പോയി അപ്പോൾ അവിടെയും ഹാഫ് ഡേ വർക്ക് നമുക്ക് പെൻഡിങ്ങ് ആയി പോയി അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ചൂട് സമയങ്ങളാണ് സാറേ നമുക്ക് പുറത്തുള്ള ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇത് സേഫ്റ്റി പ്രിക്കോഷൻ ഇത് സ്ഫേറ്റിക്കുള്ള സാധനങ്ങൾ ഒക്കെ കുറവായത് കൊണ്ട് ഒരു കൊച്ചും മേളിൽ നിന്ന് വന്ന് വീണ ഒരു സ്റ്റാഫും അത് പോയി അങ്ങനെ ഹാഫ് ഡേ അതും പോയി സാറേ അപ്പം ഇതൊക്കെ നമുക്ക് പെൻഡിങ്ങ് ആയതുകൊണ്ട് സാർ പറഞ്ഞ സമയത്ത് എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ സാർ പറഞ്ഞ സമയം നമുക്ക് അത്രയും തീർക്കാൻ പറ്റാതെ ഇപ്പം എല്ലാം ഇതൊക്കെ പോരായ്മകളാണ് സാർ പിന്നെ ഇപ്പം അടുത്ത നാളെ മുതൽ സാറിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ സൈറ്റ് നോക്കുന്നത് നന്നായിരിക്കും സാറേ

നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത എല്ലാവരും കാണിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു ആ അതായിരിക്കും നല്ലത് സാറേ എന്നാൽ നമുക്ക് സാർ നിൽക്കുമ്പോൾ ആ കുറച്ചും കൂടെ ചൂട് കാണും എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാനും തീർക്കാനും അപ്പോൾ സാർ പ്രത് പ്രതീക്ഷിക്കുന്ന സമയം നമുക്ക് തീർക്കാൻ പറ്റും ശരി ശരി